പാചകം ചെയ്യുമ്പം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മള് ഇപ്പം ഒരു പാചകം ചെയ്യുമ്പോൾ അത് നല്ലോണം അതായത് നല്ല രീതിയില് ആകണം അതായത് നമുക്ക് നല്ലൊരു ഇത് വേണം നമുക്ക് മനസ് വേണം നമ്മള് ഒരു പാചകം ചെയ്യുമ്പോൾ അതായത് മര്യാദയ്ക്ക് ആകാൻ നമുക്ക് ഒരു നല്ല മനസ് വേണം എന്നാൽ മാത്രമേ അത് മര്യാദയ്ക്ക് ആവുകയുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നല്ല ഒരു മനസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് നമ്മുടെ പാചകവും കാര്യങ്ങളുമൊക്കെ നമുക്ക് വൃത്തിയിൽ ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അതുപോലെ നമ്മള് ഇടുന്ന ചേരുവകൾ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ഇപ്പോ ചിക്കൻ മസാല അതായത് ഗരം മസാല കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പിന്നേ കറക്റ്റ് ഗരംമസാല കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇണ്ടാകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ നമ്മള് കരിഞ്ഞു പോകാണ്ട് ഒക്കെ നോക്കണം തീ ഒക്കെ മീഡിയം അത് ഇതിലിട്ടിട്ട് വേണം നമ്മള് ചെയ്യാൻ അത് ഒന്നും കരിഞ്ഞു പോകാണ്ട് നോക്കണം ഇപ്പം കരിഞ്ഞു പോയിട്ടുണ്ടേ അത് ഭയങ്കര പ്രശ്നനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോ അതൊക്കെ കരിയാണ്ട് നോക്കുക അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കരിയാണ്ട് നോക്കണം കരിഞ്ഞു ഒക്കെ പോയാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിലൊക്കെ വെക്കുവാണേൽ വെള്ളം വെക്കുന്നത് ഒക്കെ ശ്രദ്ധിക്കണം വെള്ളം ഒക്കെ ഒരു പാകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുക്കറ് പൊട്ടിത്തെറിക്കാൻ ഉള്ള സാധ്യത ഒക്കെ